കേരളത്തിലെ വിനോദ രംഗത്തെ കുറിച്ച് പറയുകയാണെങ്കില് ഒരുപാട് ഉണ്ട് ഇന്ത്യ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളില് തന്നെ ഒരുപാട് വിനോദ രംഗങ്ങളുണ്ട് ഈ കായലുകളുണ്ട് ശാന്തമായ ശാന്തമായ ആയുര്വേദ ട്രീറ്റ് മെൻ്റ് ചെയ്യുന്നവരുണ്ട് പ്രകൃതി മാറ്റത്തിന്റെ ഒരു അവസ്ഥ നിഷിടമായ കുന്നുകള് നിബിഡമായ കുന്നുകള് അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് നമ്മുടെ കേരളത്തില് ഇപ്പം തന്നെ എല്ലാവരും ഇപ്പോൾ പിന്നെ ഒരു ഫ്രീ ടൈമ് കിട്ടിയാലോ ഇല്ലെങ്കില് രണ്ടു മൂന്നു ദിവസത്തെ ഇടവേള കിട്ടിയാലൊക്കെ നമ്മള് ടൂറ് പോകുന്നവര് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് എന്നാൽ തന്നെ നമ്മള് ഏറ്റവും കൂടുതല് പോകാന് ആഗ്രഹിക്കുന്നത് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലും കായലുകള് കടലുകളൊക്കെയുള്ള സ്ഥലത്തെക്കാണ് നമ്മള് കൂടുതലും പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെയെന്ന് പറഞ്ഞാൽ അധികം ചൂട് ഉണ്ടാവില്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയിരിക്കുമെന്നൊക്കെ കരുതിയിട്ടാണ് എല്ലാവരും പോകുന്നത് അങ്ങനെയുള്ള സ്ഥങ്ങളൊക്കെ ഉണ്ട് ഊട്ടി മൂന്നാറ് വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂടൊക്കെ കുറവാണ് നല്ല തണുത്ത കാലാവസ്ഥയാണ് ശാന്തമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത് പിന്നെ ശാന്തമായിട്ടുള്ള ആയുര്വേദം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്